ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള മൃഗത്തെ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനൊക്കെ പറ്റും അത് അതിൻ്റെ ആരോഗ്യോള്ളതിനേക്കാളും കൂടുതലിപ്പം ആരോഗ്യം ഇല്ലാത്ത മൃഗങ്ങളെ കണ്ടാലാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ ഇപ്പം ഓരോ രോഗത്തിനും പല രീതിയിലുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ട് ഇപ്പം പശുവിന് പല രോഗങ്ങളും ഉണ്ടെങ്കിലും ഇപ്പം പശുവിന് ഇപ്പം അകിട് വീക്കമെന്ന് പറഞ്ഞൊര് രോഗം ഉണ്ടേൽ തന്നെ അതിൻ്റെ അകിടിൻ്റവിടെ നീര് ഒക്കെ വെച്ച് വരുമ്പഴെ തന്നെ നമുക്കറിയാൻ പറ്റും അതിനെന്തുണ്ട് ആരോഗ്യം ഉണ്ട് എന്നൊക്കെ ഉള്ളത് പിന്നീടാണെങ്കില് ഇപ്പം കോഴിക്കിപ്പം പനി ഉണ്ടേൽ തന്നെ അതിൻ്റെ കണ്ണ് അടഞ്ഞിരിക്കും അല്ലേൽ അതിന് കുറുകുറുപ്പ് അങ്ങനുള്ള പല ലക്ഷണങ്ങൾ തന്നെ ഇപ്പോൾ ആരോഗ്യമില്ലാത്ത മൃഗത്തെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും പിന്നീട് ആരോഗ്യമുള്ള മൃഗമെന്ന് പറയുമ്പം അതെപ്പഴും നമുക്ക് തിരിച്ചറിയാൻ സാധാരണ രീതിയില് അത് തരുന്ന രീതിയില് ഇത്ര പശുവാണേൽ തന്നെ ഇപ്പം സാധാരണ രീതിയിൽ തന്നെ എന്നും കിട്ടുന്ന പാല് തന്നെ കിട്ടുന്നുണ്ടോ അല്ലേൽ അതിന് തീറ്റി എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചാണകം പോകുന്നത് ലൂസായിട്ടാണോ അല്ലേല് ലൂസായിട്ടല്ലേല് നല്ല രീതിയിൽ തന്നെയാണോ പോകുന്നതിൻ്റെ മൂത്രത്തിൻ്റെ നിറം അങ്ങനെ എല്ലാം ഇപ്പം ആരോഗ്യമുള്ള ഒരു മൃഗം എന്ന് പറയുമ്പം എല്ലാം പണ്ടത്തെപ്പോലെ അങ്ങനെ ആയിരുന്നോ ആ മൃഗം അതുപോലെതന്നെയാണെങ്കിൽ തന്നെ അതല്ലെയല്ലേ എന്നുള്ള ഒരു രീതിയിലായിരിക്കണം ആ മൃഗം ഇരിക്കേണ്ടത് പിന്നീട് ആ മൃഗം എന്താണ് പറയുന്നത് ഇപ്പം ആരോഗ്യം ഉള്ള മൃഗത്തെക്കാട്ടിലിപ്പം ആരോഗ്യം ഇല്ലാത്ത മൃഗങ്ങളെ കണ്ടാലായിരിക്കും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇപ്പം കോഴിക്കിപ്പം പല രോഗങ്ങളുണ്ടേൽ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കും പശുവിനെന്തിൻറ്റേലും രോഗം ഉണ്ടേൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും അപ്പം അതിൻ്റെ ആ ലക്ഷണങ്ങള് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇതിന് ഇന്ന രോഗവുണ്ട് ഇപ്പം പശുവിനിപ്പം എന്തേലും രോഗമുണ്ടേൽ തന്നെ ഇപ്പം അത് എന്നും തരുന്ന അത്രയും പാല് തരുന്നില്ലേൽ തന്നെ പറയുന്നു ഇത്രയും എന്തുവാ അതിന് അസുഖം ഉണ്ട് അല്ലേൽ ഉണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റും അപ്പം അതിൻ്റെ ആ ചാണകം പോകുന്ന രീതി തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ എന്തേലും രോഗമുണ്ടേൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പം കൂടുതലും ആരോഗ്യമുള്ള മൃഗത്തേക്കാളും പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ആരോഗ്യവില്ലാത്ത മൃഗത്തെയായിരിക്കും ഇപ്പം ആ ആരോഗ്യമില്ലാത്ത മൃഗത്തെ കാണുമ്പം നമുക്കറിയാം അയ്യോ ഇതിനെന്തോ അസുഖവുണ്ട് അല്ലേല് അതിൻ്റെ ആ ഒരു രീതി അനുസരിച്ചായാലും ചിലപ്പം പാലിൻ്റെ നിറത്തിന് പോലും ചെറിയ ചെറിയ എന്തേലും ഒരു മാറ്റം തന്നെ വന്നാൽ തന്നെ പറയും എന്തോ അസുഖമുണ്ടല്ലൊ പശുവിന് ഉള്ളില് ഇപ്പം കോഴിക്കിപ്പം എന്നും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന കോഴി നടന്ന കോഴി പിന്നീടാണേല് എന്തോ മാറ്റം അതിൻ്റെ കണ്ണടച്ചില് ആ ഒരു കുറുകുറപ്പൊക്കെ ഉണ്ടാകുമ്പം തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഈ കോഴിക്കെന്തോ അസുഖവുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നീട് കോഴിക്കാണേല് അതാണ് കോഴി ഇപ്പം കോഴിയും പശുവിനേയും തന്നെ എടുത്ത് പറയുന്നത് കൊണ്ട് പല മൃഗങ്ങൾക്കും പലരീതിയിലുള്ള ലക്ഷണങ്ങളും പല രോഗങ്ങളുമാണുള്ളത് പശുവിന് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അകിട് വീക്കം അതുപോലെതന്നെ ആ രോഗമുണ്ട് കോഴിക്കാണേല് പനി ഇപ്പം കോഴിക്ക് തന്നെ പല അസുഖമുണ്ട് പക്ഷി പനിയൊക്കെ വരുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും താറാവിനൊക്കെ പക്ഷിപ്പനി വരുമ്പഴേ പെട്ടെന്ന് അയ്യോ ഇതിനെന്തോ അസുഖമുണ്ട് താറാവ് പെട്ടെന്ന് ചത്തു പോകാൻ തുടങ്ങുമ്പോഴേ നമ്മളപ്പം ആരോഗ്യവുള്ള താറാവിനെ അവിടുന്ന് മാറ്റി ആരോഗ്യം ഇല്ലാത്തതിനെ നമ്മള് അതിൻ്റെയനുസരിച്ചുള്ള ഇപ്പം അത് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് വിവിധ സംവിധാനങ്ങളിപ്പം നമ്മൾക്കുണ്ട് ഇപ്പം ആരോഗ്യമുള്ള ആരോഗ്യവില്ലാത്തൊരു മൃഗത്തെ ഇനിയിപ്പം വെറ്റിനറി സർജൻസ് എല്ലാം ഇപ്പം കേരളത്തിൽ വളരെ കൂടുതൽ അവൈലബിളായിട്ടുള്ള ടൈംമാണ് അവരേ ഏത് ടൈമിൽ വിളിച്ചാലും അവർ എന്ത് ചെയ്യും എത്തിച്ചേരും പിന്നീടാണെങ്കില് ഈ ഇവർക്കാണേല് എന്താണ് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് പോലെ തന്നെ ആരോഗ്യമുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആരോഗ്യമില്ലാത്ത മൃഗംമേതാണോ അതിനെയായിരിക്കും നമ്മൾ കൂടുതൽ ചികിത്സിക്കേണ്ടതും കെയർ ചെയ്യേണ്ടതും അപ്പം അപ്പം നമ്മളതിനെ ആയിരിക്കും കൂടുതൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് പിന്നീട് ഈ ഇപ്പാരോഗ്യമില്ലാത്ത മൃഗത്തെ ഇപ്പം നമ്മള് ആ ആരോഗ്യവില്ലാത്ത മൃഗത്തെ എങ്ങനെ ആണിപ്പം ആരോഗ്യമാക്കുക എന്ന് ചോദിച്ചാൽ നമ്മളതിന് ഏറ്റവും കൂടുതൽ ഉപദേശം തരുന്നത് വെറ്റിനറി സർജൻ ഇപ്പം കൂടുതലറിവുള്ളവരുവായിട്ട് ഇപ്പം അല്ലേല് പണ്ടത്തെ ഉള്ളവർ വളർത്തിയത് പോലെ അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതിനേക്കാളും കൂടുതല് നമ്മൾ കൂടുതലും ഇപ്പൊഴത്തെ രോഗങ്ങളനുസരിച്ച് ഇപ്പോഴത്തെ ടെക്നോളജിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യേണ്ടത് വെറ്റിനറി സർജൻസിൻ്റെ ഉപദേശം അതുപോലെതന്നെ നമ്മളുടെ ചിലപ്പം ചില പ്രായമായവർക്ക് ചില നാച്ചുറലായിട്ടുള്ള എന്തേലും മരുന്നുകളൊക്കെ അറിയായിരിക്കുവല്ലോ അപ്പം അവരോട് ചിലപ്പം ഉപദേശം ചോദിക്കും എന്നാ അത് ശരിയാണോ എന്ന് നമ്മുടെ വെറ്റിനറി സർജൻസിനോട് ചോദിക്കുക ഉറപ്പുവരുത്തിയിട്ട് മാത്രമായിരിക്കണം നമ്മള് ചെയ്യേണ്ടത് പിന്നീട് നമുക്കതിനെ ആരോഗ്യമാക്കാം ആരോഗ്യമില്ലാത്തതിന് നമുക്ക് എങ്ങനേലും ആരോഗ്യമാക്കാം ഇപ്പം അതിനെ അപ്പം നമ്മൾ കൂടുതൽ തിരിച്ചറിയണം ആരോഗ്യമില്ലാത്ത മൃഗത്തെയാണ് നമ്മൾ കൂടുതലും തിരിച്ചറിയേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം